ഇപ്പം വയനാട് ജില്ലയിൽ പ്രധാനമായിട്ടും നമ്മൾ ടൂറിസങ്ങ ടൂറിസം സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എടയ്ക്കൽ ഗുഹ എന്നുപറഞ്ഞാൽ എടയ്ക്കൽ ഗുഹ അമ്പലവയൽ ആ ഭാഗങ്ങളിലുള്ള എടയ്ക്കൽ ഗുഹയാണ് അപ്പം അവിടത്തെ അവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഗുഹ ആണ് അപ്പോൾ അവിടെ പണ്ട് നമ്മുടെ പൂർവ്വീകർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളും അവരുടെ ലിപികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അപ്പം അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ അവിടെ എല്ലാവരും എല്ലാ സീസണുകളിലും ആൾക്കാർ വരുന്നുണ്ട് അത് നല്ലൊരു സ്ഥലമാണ് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറുവ ദ്വീപ് ആണ് കുറുവ ദ്വീപിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു എന്താണ് പറയുക ഇപ്പോൾ നമ്മളെ ദ്വീപ് പോലെത്തന്നെ അതിൻ്റെ ചു എന്താണ് പറയുക ഒരു ദ്വീപിന് ചുറ്റും വെള്ളം ഒഴുകുന്ന ഒരു ഇതിൽ രീതിയിലാണ് കുറുവ ദ്വീപ് ഉള്ളത് അവിടെയും ഏകദേശം എല്ലാ സീസണുകളിലും എല്ലാ സീസണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മഴക്കാലത്ത് ഒഴികെ ബാക്കി എല്ലാ ടൈമുകളിലും ആൾക്കാർ വരുന്നതാണ് അപ്പോൾ നല്ലൊരു സ്ഥലമാണ് അതും പിന്നെ പടി പടിഞ്ഞാറത്തറ ഡാം ഉണ്ട് അവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഡാം ആണ് ഒരു അണക്കെട്ട് പോലെ അപ്പോൾ അതും എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വയനാട്ടിലെ ആകർഷകമായുള്ള സ്ഥലങ്ങൾ